ഇതൊക്കെ ആയിരിക്കും ഏറ്റവും കൂടുതല് കേരളത്തില് ഉൽപാദിക്കപ്പെടുന്നത് ഇപ്പോൾ നമ്മള് പാലക്കാട് നോക്കുവാണെങ്കിൽ പാലക്കാടിനെയാണ് റൈസ് ബൗൾ ഓഫ് കേരള എന്ന് പറയുന്നത് പാലക്ക് നെല്ലറ പാലക്കാടാണ് നെല്ലറ എന്ന് പറയുന്ന കേരളത്തിൻ്റെ നെല്ലറ എന്ന് പറയുന്നത് പാലക്കാടാണ് പാലക്കാട് ഡിസ്ട്രിക്ട്ടിലാണ് അപ്പോൾ നമ്മള് ഇപ്പോൾ നോക്കിയാൽ തന്നെ പാലക്കാടും ആലപ്പുഴയും ആണ് ഏറ്റവും കൂടുതൽ നെല്ല് കൃഷി ചെയ്യുന്നതും അത് വിളയിക്കുന്നത് ചെയ്യുന്നത് നമ്മുടെ കാലാവസ്ഥയുടെ പ്രത്യേകത കാരണം നല്ല രീതിയിലുള്ള വിളവുകൾ പണ്ട് ലഭിക്കുമായിരുന്നെങ്കിലും ഇന്നത്തെ ഇന്നത്തെ അവസ്ഥ നോക്കുമ്പോൾ മാറിവരുന്ന കാലാവസ്ഥ വ്യതിയാനങ്ങള് അതിനെ വളരെയധികം അഫക്ട് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ കന്നുകാലികള് പക്ഷികളെ അല്ലേൽ പൗൾട്രി നോക്കുവാണെങ്കിൽ പിന്നെ കോഴിയും ആട് പശു ഇത് ഇത്രയും നം കേരളത്തില് നല്ല രീതിയില് ആൾക്കാര് വളർത്തുകയും പരിപാലിക്കുകയും ചെയ്തു വരുന്നുണ്ട് അപ്പോൾ നമ്മുടെ മിൽമ നോക്കിയാൽ തന്നെ മിൽമ നല്ല ഫേയ്മസ് ആയിട്ടുള്ള ഒരു ഒരു എന്തുവാ

വിളകളില് അരിയും പച്ചക്കറികളുമാണ് ഏറ്റവും കൂടുതല് ഇംപോർട്ടന്റെ ആയിട്ട് കൃഷി ചെയ്ത് വരുന്നത് കേരളത്തില്